എനിക്ക് ദക്ഷിണേന്ത്യയിലെ ഭക്ഷണമാണ് എനിക്ക് ഇഷ്ടവും ഉണ്ടാക്കാൻ താല്പര്യവും എല്ലാം എനിക്ക് വീട്ടില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭഷണം അതാണ് ഒ മന്തി ചിക്കൻ ബിരിയാണി അതുപോലെ നമ്മുടെ സാദാ ഉണ്ടാക്കുന്ന ചോറും കറിയും ഉപ്പേരിയും മീൻ വറുത്തതും അങ്ങനെ ഓരോന്ന് എനിക്ക് ഉണ്ടാക്കി അതാണ് ഏറ്റവും കൂടുതലിഷ്ടമുള്ള ഭക്ഷണവും അതാണ് പിന്നെ മക്കൾക്കായാലും വീട്ടുകാർക്കായാലും ആർക്കായാലും ഇഷ്ടപ്പെട്ട ഭഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും എനിക്ക് താല്പര്യമുള്ളതാണ് പിന്നേ മക്കൾക്ക് അവർക്ക് മന്തി വേണം മറ്റേത് വേണം എന്നൊക്കെ പറയുമ്പൊള് ഉണ്ടാക്കി കൊടുക്കും അത്യാവശ്യം ഒരുവിധം പാചകങ്ങളൊക്കെ ചെയ്യാനറിയാം പിന്നെ നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലെ ഭഷണം ഉണ്ടാക്കാനാണ് അറിയുക പക്ഷേ ഉത്തരേന്ത്യയിലെ ഭക്ഷണത്തിനോട് താല്പര്യവുവില്ല അതുണ്ടാക്കാനും അറിയില്ല കഴിക്കാനും അറിയില്ല അത് എങ്ങനെയാണെന്നുള്ള ടേസ്റ്റും അറിയില്ല നമ്മൾക്ക് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഭക്ഷണം മാത്രമാണ് കഴിക്കാനും താൽപ്പര്യം അതാണ് ഉണ്ടാക്കാനും താല്പര്യം മക്കൾക്കായാലും ആർക്കായാലും ഉണ്ടാക്കിക്കൊടുക്കാനും താല്പര്യം അതാണ് പിന്നെ നമുക്ക് എങ്ങനെ എന്ന് വെച്ചാൽ എല്ലാ ഭഷണത്തോടൊന്നും താല്പര്യമില്ല സാദാ ചോറും കറിയും ഒക്കെയാണ് പിന്നെ ചിക്കൻ ബിരിയാണി അതേമാതിരി മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ എല്ലാ ഇതൊന്നും അങ്ങനെ വലിയൊരു തത്പര്യമില്ലാത്ത ഒരു കൂട്ടാണ് മക്കൾക്കായാലും എനിക്കായാലും മറ്റുള്ളവർക്കായാലും ഒക്കെ അങ്ങനെയാണ് സാദാ ഞമ്മള് ദക്ഷിണേന്ത്യയിലെ ഭക്ഷണം മാത്രമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളതും നമുക്ക് കഴിക്കാൻ ആഗ്രഹുള്ളതും പിന്നെ ഉത്തരേന്ത്യയിലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടൂമില്ല കഴിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല നമുക്ക് നമ്മുടെ മലയാള ഇതിലുള്ള ഇവലുള്ള നാട്ടിലുള്ള ഭക്ഷണമാണ് ഏറ്റവും കൂടുതലിഷ്ടം